ആ ഹലോ ഏട്ടാ ഇപ്പോൾ ഇവിടെ ഫുഡ്ഡ് ഡെലിവറി ചെയ്തല്ലോ അപ്പോൾ ഇവിടെ വീട്ടിൽ പ്ലേറ്റും ഗ്ലാസുമായിട്ടുള്ള കട്ട്ലറീസ് ഒന്നുമില്ല സ്പൂണും അപ്പോൾ അതുംകൂടി ഡെലിവറി ചെയ്താൽ എനിക്ക് സൗകര്യമായിരുന്നു ഇത് ഇല്ലെങ്കിൽ ഡെലിവറി ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പുറത്തു പോയിട്ട് മേടിക്കണം ഈ നേരത്ത് എവിടെയും കടകളില്ല അപ്പോൾ അത് പറ്റിയെന്ന് വച്ചാൽ ഒപ്പം ഒന്ന് ഒന്നു ഡെലിവറി ചെയ്താൽ സൗകര്യമായിരുന്നു ഞാൻ ഫുഡിൻ്റെ ഒപ്പം പ്ലേറ്റും ഈ കട്ട്ലറീസും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു അതിനാൽ നേരത്തെ പറഞ്ഞില്ല സോറി ഇപ്പോൾ ഇപ്പം അപേക്ഷിക്കുകയാണ് പ്ലേറ്റും സ്പൂണും കാര്യങ്ങളും കിട്ടിയാൽ എനിക്ക് സൗകര്യമായിരുന്നു കഴിക്കാൻ വലിയ കഷ്ടപ്പാടും ഒന്നും വരില്ല എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും